ടാപ്പ് വെള്ളം ലഭിക്കാറുണ്ട് നല്ല ടാപ്പു വെള്ളമാണ് ഇവിടെയെന്നു വെച്ചു കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിയുടെ നല്ല കണക്ഷനിൽ നല്ല രീതിയിലുള്ള വെള്ളം ശുദ്ധമായ വെള്ളമാണ് ലഭിക്കുന്നത് വളരെ സുലഭമായ വെള്ളം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് കിണറ്റിലെ വെള്ളത്തിലേക്കാളും കൂടുതൽ നല്ല പ്രഷറിലും കാര്യങ്ങളിലും നമുക്കിവിടെ വെള്ളം ലഭിക്കുന്നുണ്ട് വേറെ ഒരു വ്യത്യസ്തമായ ഒരു മണമോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ടു തന്നെ നല്ല രീതിയിൽ വെള്ളം ലഭിക്കുന്നു എന്നു വെച്ചു കഴിഞ്ഞ് ആ വെള്ളം കൊണ്ട് നമ്മുടെ വസ്ത്രങ്ങളാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെ ഉപകാരപ്രദമാണ് വേറൊരു മണമോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല പിന്നെ ക്ലീൻ ചെയ്യാനാണെങ്കിലും ഈ വെള്ളം മെ നമുക്ക് വ് ഉപയോഗിക്കാൻ ആണെങ്കിലും നമുക്ക് വന്ന് ഇതിപ്പം ലൈനിൽ നിന്നു വന്ന് ആ ടാങ്കിൽ വന്നു നിറഞ്ഞാലും നമുക്ക് അടിച്ചു കയറ്റാവുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഇതിനുള്ളൂ വളരെ ഉപയോഗപ്രദമായ വെള്ളമാണ് ടാപ്പിലെ വെള്ളം